ഞങ്ങളുടെ ഗ്രാമത്തിൽ പലചരക്ക് കടകൾ ര ഒന്ന് ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ തന്നെയുണ്ട് പിന്നെ വേറെ ഒരെണ്ണം ഇത്തിരി കൂടി അപ്പുറത്ത് മാറി അതിൻറെ എല്ലാ കടകളിലും ഞങ്ങൾ പോയി സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് കൂടുതലും ഞങ്ങളുടെ അടുത്ത കട അടുത്ത കടകളില് തന്നെയാണ് പോയി മേടിക്കുന്നത് പിന്നെ കടം മേടിക്കാറുണ്ടോ എന്ന് ചോദിച്ചാല് കടം മേടിക്കാറുണ്ട് വില പേശാ വിലപേശാറില്ല അടുത്ത് നമുക്ക് അറിയാവുന്ന കടകളിലാണെങ്കില് എങ്ങനെ വിലപേശും വിലപേശാറില്ല വിലപേശുന്നു അത് ശരിയല്ല സാധനങ്ങൾ മേടിക്കാന് പിന്നെ കൂടുതലും നമ്മുടെ വീട്ടുസാധനങ്ങൾ മേടിക്കുന്നത് പലവ്യഞ്ജന സാധനങ്ങൾ എന്നുവെച്ചാൽ അരി അത് ഒക്കെ മേടിക്കും വില പേശാറില്ല പിന്നെ അങ്ങനെ അല്ലാതെ സാധനങ്ങളെന്ന് പറയുമ്പോൾ ഒരു ബക്കറ്റോ അങ്ങനെ ഒക്കെ ബക്കറ്റ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പം ചിലപ്പം വില ചോദിച്ച് വില പേശാറുണ്ട് പിന്നെ കടകളിൽ സാധനങ്ങൾ എൽ അരി അരി അരി എല്ലാ സാധനങ്ങളുമുണ്ട് ഒരു നമ്മെ ഞങ്ങളുടെ അടുത്ത് കടകളിൽ ഒരു വിധപ്പെട്ട എല്ലാ സാധനങ്ങളുമുണ്ട് ഉപ്പ് തൊട്ട് കര്പ്പൂരം എന്ന് പറയുന്നത് പോലെ അരി ഉള്ളി മുളക് എല്ലാം പിന്നെ വീട്ടില് പെട്ട എല്ലാ സാധനങ്ങളും പിന്നെ പിന്നെ പശുക്കൾക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്നത് സഹിതം ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ വീടിനടുത്തുള്ള കടകളിലുണ്ട് പണം നമ്മൾ കൂടുതലും നമ്മുടെ കൃഷി ഉത്പ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ റബ് ഷീറ്റ് ഷീറ്റ് തൊട്ട് റ അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ സാധനം മേടിക്കുന്നത് സാധനം മേടിക്കുന്നത് ചിലപ്പോൾ അപ്പം പൈസ കൊടുക്കും അല്ലെങ്കില് പൈസ ഇല്ലാത്തപ്പം കടം മേടിക്കാറും ഉണ്ട്